ആ ചേച്ചി വരു നമസ്കാരം ആ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാ സാധനങ്ങളും വേണ്ടി വരില്ലെ ഫ്രിഡ്ജ് ടിവി വാഷിംഗ് മെഷീൻ എല്ലാം ആ ഓക്കെ നമ്മൾ ഇപ്പോൾ ആ മുകളിൽ ആണ് ഓരോ സെക്ഷൻ ആണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഉള്ള ഒക്കെ ഒരു ഭാഗത്ത് ഫ്രിഡ്ജും മറ്റേ ഭാഗത്ത് വാഷിംഗ് മെഷീനും ആണ് ടിവിയും മറ്റേ എല്ലാം മുകളിൽത്തെ ഒരു ഇതിലാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങാം ആ നമുക്ക് ഇപ്പോൾ രണ്ട് സിംഗിൾ ഡോറും അതെ സിംഗിൾ ഡോറും ഉണ്ട് അതേപോലെ ഡബിൾ ഡോറും ഉണ്ട് ഡബിൾ ഡോർ ഇപ്പോൾ ഏത് കമ്പനിയാണ് നോക്കുന്നത് നമ്മള് ഇപ്പോൾ ഒരുപാട് കമ്പനി ഉണ്ട് എൽ ജി വേർപൂള് അതേപോലെ പാനസോണിക്ക് ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട് ആ എൽജീൻ്റെ സിംഗിൾ ഡോറിന് വന്നിട്ട് പതിനാല് രൂപ ആണ് വരുന്നത് ഡബിൾ ഡോറിന് ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് ഇത് ആ ഇത് പതിനേഴ് രൂപ വരുന്നണ്ട് ഈ ഫ്രിഡ്ജിന് ആ പിന്നെ പതിനേഴ് രൂപ വരുന്നണ്ട് എല്ലാം ഫുൾ എല്ലാം വരും ആ ആ എല്ലാം നല്ല തന്നെ ആണ് പക്ഷെ എല്ലാം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ളത് ആണ് നമുക്ക് ഇതിന് രണ്ട് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് ആ അപ്പോൾ ആ അതിൻ്റെ ഇത് വരണം ഇല്ല ഇത് നിങ്ങള് കസ്റ്റമർക്ക് ആർക്കേലും കമ്പനീല് വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ വന്ന് സർവീസിന് ആള് വരും വീട്ടിൽ വന്ന് നന്നാക്കി തരുന്നതാണ് അതെ അതെ ആള് വീട്ടില് വന്ന് നന്നാക്കി തരും വാഷിംഗ് മെഷീൻ എല്ലാം ഇതും ഉണ്ട് നമുക്ക് മുകളില് ഓപ്പൺ ആക്കണ വേണോ അതോ താഴത്ത് ഓപ്പൺ ആക്കുന്ന വേണോ അത് മതി അതിന് അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക്ക് ആയിട്ട് ഉള്ള വേണോ അതോ സെമി ആയിട്ട് ഉള്ള വേണോ ഇപ്പോൾ എങ്ങനെ ഉള്ളതാണ് വേണ്ടത് അതെ ഓട്ടോമാറ്റിക് ആണ് നല്ലത്

ഇല്ല എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും ഒക്കെ സെൻസറിൽ ആണ് പ്രവർത്തിക്കുന്നത് കറണ്ട് പോയാലും പിന്നെ കറണ്ട് വന്നാലൊക്കെ പ്രവർത്തിക്കും അത് എവിടുന്ന് ആണ് നിന്നത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോളും ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒര് ഇഷ്യൂ ഒന്നും വരുന്നില്ല നല്ല പെർഫോമൻസ് ഉള്ളത് ആണ് ഇത് ഇപ്പം ഗോദ്റെജിൻ്റെ ഉണ്ട് അതേപോലെ എൽ ജി വേർപൂളിൻ്റെ ഒക്കെ എല്ലാ കമ്പനിയുടെ നമ്മുടേത് വരുന്നുണ്ട് പിന്നെ എൽ ജി തന്നെ ആണോ നോക്കുന്നത് അതോ വേറെ നോക്കുന്നുണ്ടോ

പതിനഞ്ച് രൂപ പതിനാറ് രൂപേൻ്റെ അടുത്ത് വരും ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ വരുന്നുണ്ട് ഇരുപത്രണ്ട് രൂപ ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട് നമുക്ക് തുണി ആ എത്ര കിലോ തുണി ഇടുന്നേൻ്റെയാണ് വേണ്ടത് എത്രയാ ഇല്ല ഇത് വരുന്നത് കിലോ

ഓക്കെ ഓക്കെ ആ ഈ പറഞ്ഞത് എടുക്കാം പിന്നെ പിന്നെ എന്താ ടിവി വേണം അല്ലേ ടിവി അല്ലേ ഇനി വേണം പറഞ്ഞത് ടിവി നമുക്ക് ഇപ്പോൾ വലുത് എൽ സി ഡി തന്നെ വേണം വലിയ ടിവി എത്ര ഇഞ്ച് ആണ് നോക്കണത് നാപ്പത് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് എത്ര ഇഞ്ചിൻ്റെയാണോ വേണ്ടത് മുപ്പത്തഞ്ചിൻ്റെ മുപ്പത്തി രണ്ട് രൂപ ആ റേറ്റില് വരും മുപ്പത്രണ്ട് രൂപ മുപ്പത് ആ ഓരോ കമ്പനിക്ക് ഓരോ വ്യത്യാസം എൽ ജി ആണേൽ മുപ്പത്രണ്ട് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് അതേപോലെ ഗോദ്റെജ് ടിവി ഒക്കെ വരുവാണേൽ നമുക്ക് ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപ ആ ഒരു ലെവലില് വരും എല്ലാവർക്കും ഓക്കെ എൽ ജി ആണോ ഓക്കെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ബില്ല് ഒക്കെ എങ്ങനെയാ നിങ്ങള് പേ ചെയ്യണ ഗൂഗിൾപേ വഴിയോ എങ്ങനെ പേ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സംഭവം സെറ്റ് ആക്കീട്ട് തരാം ബില്ല് തരാം താഴെ അതെ മൂന്നും കൂടി അത് മറ്റേവടേ ആ ബിൽ സെക്ഷനിൽ പോയി പറഞ്ഞാൽ അവര് ഇത് ആക്കി തരും ഞാൻ അത് മൂന്ന് എണ്ണത്തിൻ്റെയും ലിസ്റ്റ് അവിടെ കൊടുക്കുക അവിടെ പോയി ബില്ല് നോക്കിയിട്ട് എങ്ങനെ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇ എം ഐ ആണോ വേണ്ടതെങ്കിൽ അങ്ങനെ ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അങ്ങനെ അത് പിന്നെ സൗകര്യം പോലെ ചെയ്താൽ മതി അത് അവിടെ അതെ അതെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാകും ഡിസ്കൗണ്ട് അതേപോലെ പിന്നെ കമ്പനി വക വാറണ്ടി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ പറയാം അവിടെ അറിയാൻ പറ്റില്ലേ ബിൽ സെക്ഷനിൽ ആ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇത് ഒക്കെ അറിയാം ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് കിട്ടും ഇതില് ഓക്കെ നമുക്ക് ഇത് ബിൽ സെക്ഷനിലേക്ക് പോകാം ആ

ആ നമുക്ക് അവിടെ പോയാൽ മതി ബിൽ സെക്ഷനിൽ പോയി പറഞ്ഞാൽ നമുക്ക് ശരി ആക്കാം ഓക്കെ ഓക്കെ ബിൽ സെക്ഷനിൽ പൊക്കോളൂ റെഡി